എൻ്റെ പാട്ട് ജീവിതത്തിൻ്റെ ഭാവിയിലേക്കുള്ള കാര്യം എന്ന് പറയുമ്പം പാട്ട് പാടാൻ അറിയാം കേൾക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അതൊരു തൊഴിലായി സ്വീകരിക്കാം അല്ലെങ്കിൽ അത് അതിൽ അത്രയേറെ ആ ആത്മാർത്ഥതയോടെ പഠിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ പാട്ട് പാടും നല്ല നല്ല രീതിയിൽ തന്നെ പാട്ട് പാടും അതും പാട്ട് പഠിച്ചിട്ട് പോലുമില്ല പന്ത്രണ്ടാം ക്ലാസ് വരെ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടുമില്ല ഇപ്പളും പഠിക്കുന്നൊന്നുമില്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലോണം പാടുവാനൊക്കെ അറിയാം പക്ഷെ അത് അഭിലാഷങ്ങളായി മുന്നോട്ട് എന്തെങ്കിലും പാട്ട് കൊണ്ട് നേടിയെടുക്കണോ ചോദിച്ചാൽ അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഇനി മുന്നോട്ട് ആഗ്രഹം വരുമോ എന്നും അറിയില്ല എനിക്ക് ഇഷ്ടമാണ് പാട്ട് എങ്ങനെ പാടാനും കേൾക്കാനും എങ്ങനെ ആയാലും പാട്ടിനോട് ഒരു ഇഷ്ടക്കുറവ് ഒരിക്കലും വന്നിട്ടില്ല എപ്പോഴായാലും ഒരു സങ്കടം വന്നാൽ ആരും വിശ്വസിക്കില്ല ഞാൻ ഇരുന്ന് പാട്ട് പാടും പാട്ട് പാടുന്നത് അത്രയും ഇഷ്ടമാണ് ഒരു ദേഷ്യം ഒരു ഒരു സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ എന്തെങ്കിലും ഒരു പാട്ട് പാടിയാലോ എന്തെങ്കിലും ഒരു പാട്ട് കേട്ടാൽ തന്നെ എനിക്ക് അത് ഒരുപാട് സന്തോഷം തന്നെയാണ് അതുപോലെ തന്നെ പാട്ട് എന്ന് പറയുന്നത് എറ്റവും എല്ലാവർക്കും എന്നെ പോലുള്ള എല്ലാവർക്കും പാട്ട് പാടുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ള ആൾക്കാർകൊക്കെ ഏറ്റവും സന്തോഷം കൊടുക്കുന്നത് തന്നെയാണ് പാട്ട് പാടുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ എനിക്ക് പാട്ട് ഒരുപാട് പാട്ട് പരിപാടികൾക്ക് ഒന്നും പോവാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും പോവാൻ പറ്റിയ ഒരുപാട് പാട്ടും പരിപാടികളും കേട്ട കുറേ സംഗീതം അറിയുന്ന ആൾക്കാർ ഒക്കെ ഭയങ്കര ഇഷ്ടാമാണ് ഞാൻ പറഞ്ഞില്ലെ പാട്ട് എങ്ങനെയായാലും ഏത് രൂപത്തിലായാലും എനിക്കിഷ്ടമാണ് ഇതിപ്പം ഉപകരണങ്ങൾ കൊണ്ട് പാട്ട് അങ്ങനെ ആയാലും ഒരു മദ്ദളം ചെണ്ട എങ്ങനെ ആയാലും അതിൻ്റെ സംഗീതം എന്നുള്ളത് എങ്ങനെ വർണിച്ചാലും അതിനോട് ഒരിക്കലും വെറുപ്പ് തോന്നാത്ത ഒരാളാണ് ഇപ്പം പാട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞ് കൊടുക്കാനും ഒരുപാട് ആധികാരികമായി പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി അത്യാവശ്യം കൂട്ടുകാരൊക്കെ പറഞ്ഞും കേട്ടും പാട്ടിനെ കുറിച്ചൊക്കെ അറിയാം അപ്പം അതൊക്കെ എങ്ങനെ എങ്ങനെയായാലും പറഞ്ഞ് കൊടുക്കാനും കേൾക്കാനും ഒക്കെ എനിക്ക് എപ്പോഴും ഇഷ്ടം തന്നെ ആണ്